ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതായത് നല്ലവണ്ണം ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെയാണെങ്കിൽ അതുതന്നെ ഒരു ഉപജീവനമാർഗ്ഗമായി എടുക്കാൻ നല്ല അടിപൊളിയാണ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് പണ്ടത്തേപ്പോലെയല്ല ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ പ്രീ വെഡിങ് എൻഗേജ്മെൻറ്റ് മാരേജ് പോസ്റ്റ് വെഡിങ് പിന്നേ മെറ്റേണിറ്റി ഷൂട്ട് പിന്നേ കുട്ടിയിണ്ടായിട്ടുള്ള അതായത് ന്യൂബോൺ ഷൂട്ട് പിന്നേ കുട്ടീൻറ്റെ ഒരു ത്രീ മന്തിലെ സ്റ്റൂട് ഇരുപത്തെട്ടെന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അതിൻറ്റെ ഷൂട്ട് പിന്നേ ത്രീ മന്ത് ഷൂട്ട് പിന്നേ സിക്സ് മന്ത് ഷൂട്ട് ചോറൂണിൻറ്റെ ഷൂട്ട് അതേപോലെ പിന്നേ ഒരു വയസ്സാകുമ്പോൾ ബർത്ത് ഡേൻറ്റെ ഷൂട്ട് അങ്ങനേ ഒരുപാട് ഷൂട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖല എടുക്കുന്നവർക്ക് കൂടുതലും ഭാഗ്യമാണ് അതായത് നല്ല ഉപജീവനമാർഗ്ഗമാണ് നല്ല പൈസയും കിട്ടും അതേപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാ ഷൂട്ടും അതായത് ഒരു കല്യാണത്തിൻറ്റെ ഒരു ഇതിന് തന്നേ അതായത് വീഡിയോ അടക്കമാണെങ്കിൽ പത്തെഴുപതിനായിരം എൺപതിനായിരം രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പിന്നേ അതേപോലെ വലിയ വലിയ ടീംസിനൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപേൻറ്റെയൊക്കേ അതായത് ഫോട്ടോഗ്രാഫി തന്നേ നമുക്ക് ചിലവാകുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു ഉപജീവനമാർഗ്ഗമായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരേ നല്ലതാണ്